ഹലോ ആശാ ബേക്കറി അല്ലേ

അലീന ആയിരുന്നേ വലിയ വീട്ടിലെ ആ അതു തന്നെ അതു തന്നെ അതു തന്നെ ചേച്ചീ അവിടെ അവിടെയാണെങ്കില് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കുണ്ടോ ചേച്ചീ എത്രയാണ് ഇപ്പോള് കിലോയ്ക്ക് ഹാ റെഡ് വെൽവറ്റിനോ ആ വൈറ്റ് ഫോറസ്റ്റോ ഡെലിവറി ചാർജുണ്ടോ ചേച്ചീ കൊണ്ടുത്തരുമ്പോള് അ ഹാ എനിക്ക് ഒരു ബർത്ത്ഡേ ഫംക്ഷനുണ്ടായിരുന്നെ അപ്പോള് ഒരു കേക്ക് വേണ്ടായിരിന്ന് ഇന്നു വേണം ചേച്ചീ ഇന്നു നാലു മണിക്കാണ് ഫക്ഷൻ അപ്പോള് എനിക്ക് ഒരു മൂന്നു മണിയാകുമ്പോഴ്ത്തേനേലും സംഭവം കിട്ടണം

ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു രണ്ട് കെ ജി വേണം

ആ അതു മതി അതു മതി

റെഡ് വെൽവറ്റിന് ഒരു കെ ജിക്ക് ആയിരം രൂപയല്ലേ ചേച്ചീ രണ്ടായിരം രൂപയാകില്ലേ രണ്ട് കെ ജിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് മതി

എനിക്ക് ഒരു മൂന്നു മണിയാകുമ്പോഴത്തേനു ചേച്ചി അഭിനന്ദ് ബേക്കറിയിൽ കൊടുത്താല് മതി ഞാൻ അവിടെനിന്നു മേടിച്ചോളാം

അ ഹാപ്പി ബർത്ത്ഡേ അച്ചു എന്നു വല്ലതും എഴുതിയേരെ

ആ അഭിനന്ദ് ബേക്കറിയില് അഭിനന്ദ് ബേക്കറിയില്

ആ തിരിയുന്നിടത്ത് ആ അല്ലേ ആ അതു തന്നെ അതു തന്നെ അപ്പോള് ഞാൻ പൈസ ഗൂഗിൽ പേ ചെയ്യണോ അവരുടെ കയ്യിൽ കൊടുക്കണോ ചേച്ചീ

ആ അപ്പോള് അപ്പോള് എത്രയാണു ചെയ്യേണ്ടത് രണ്ട് കെ ജി അല്ലേ

ആ ഞാൻ രണ്ട് കെ ജിയുടേതു ചെയ്തേക്കാവേ ആ മൂന്നു മണിക്കു തന്നെ എത്തിക്കുമോ ചേച്ചീ